അതായത് നമ്മുടെ ജില്ലയിലെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിത്യേന നേരിടുന്ന ചില പൊതു വെല്ലുവിളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ ജോലിസ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുമ്പം അതായത് സമയത്തിന് എത്താനാവില്ല അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതൊക്കെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയപാർട്ടികൾ ഒക്കെ പിന്നെ നേരിട്ട് പിന്നെ വന്നിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അത് അപ്പം അതിൻ്റെതായ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് എന്ത് കൊണ്ടാണ് കാരണങ്ങൾ എന്നൊക്കെ കാരണം ഒക്കെ നോക്കി മര്യാദക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇങ്ങനത്തെ വെല്ലുവിളികൾ ഒക്കെ അവരുടെ ജീവിതത്തെയും പ്രശ് അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ചെറുകിട മത്സ്യ കച്ചവടക്കാര് മെയിൻ ആയിട്ട് ഒരുപാട് പിന്നെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് ഇപ്പം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മാലിന്യങ്ങള് കാര്യങ്ങളൊന്നും കൃത്യമല്ലാത്ത രീതിയിലുള്ള മാലിന്യ നിർമാർജന മാലിന്യനിർമ്മാർജ്ജനം കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് അപ്പം ഫുള്ള് വേസ്റ്റ് ആണ് അതായത് നമ്മുടെ പിന്നെ കടലിലേക്ക് ഒക്കെ ഫുള്ള് വേസ്റ്റുകൾ ഒക്കെയാണ് തള്ളുന്നത് അപ്പം അതൊക്കെ പിന്നെ എല്ലാവരും ഇടപെട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ നദീതട ഖനനം അതായത് ഖനനം നടത്തുന്നത് ഒക്കെ കുറക്കണം അല്ലെങ്കിൽ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ നദിൻ്റെ നിലനിൽപ്പിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കും അതുപോലെ നമ്മുടെയും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേതാക്കളും എല്ലാവരും കൂടെ പിന്നെ സഹകരിച്ച് ചെയ്യേണ്ടതാണ്